ചില പ്രധാന പത്രങ്ങളുടേയും ടി വി ചാനലുകളുടേയും പേരാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം മലയാള ദിന പത്രങ്ങളായ മലയാള മനോരമ മാതൃഭൂമി മാധ്യമം ഇങ്ങനെ ഒക്കെ കുറച്ച് മലയാള ദിന പത്രങ്ങളാണ് പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വരുമ്പോൾ ദി ടൈംസ് ഓഫ് ഇന്ത്യ ദി ഇന്ത്യൻ എക്സ്പ്രസ് ദി ഹിന്ദു ഇതൊക്കെ കുറച്ച് എന്താണ് പറയുക ഇംഗ്ലീഷ് ദിന പത്രങ്ങളാണ് നമ്മൾ വായിക്കാറുള്ളത് പിന്നെ വാർത്ത ടി വി വാർത്ത ചാനലുകളുടെ കാര്യം കടക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ട്വൻറ്റി ഫോർ ന്യൂസ് ഇതൊക്കെ മലയാളം മാധ്യമ വാർത്താ ചാനലുകളാണ് അപ്പോൾ ഇതുണ്ട് പിന്നെ ഇംഗ്ലീഷ് വാർത്താ ചാനലുകളിലേക്ക് പോവുമ്പോഴേക്കും ടൈംസ് നൗ റിപ്പബ്ലിക് ടി വി സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ ഇതൊക്കെ കുറച്ച് വലിയ ഇംഗ്ലീഷ് വാർത്താ ചാനലാണ് ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത് എൻ്റെ കുടുംബത്തിൽ പൊതുവെ വായിക്കാറും കാണുന്നതും ഈ വാർത്താ ചാനലുകളൊക്കെ തന്നെയാണ് വാർത്താ ചാനലുകളും അപ്പോൾ ഇത് നമുക്ക് പല കാര്യങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള കുറേ വാർത്തകൾ ന്യൂസ് ചാനലുകളിൽ വരുന്നുണ്ട് ചാനലുകളിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം പിന്നെ നമ്മുടെ സാമ്പത്തികം സ്ഥിതി രാജ്യത്തിലെ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ നമക്ക് വാർത്താ ചാനലുകളിലൂടെ കുറേ അധികം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുംതോറും തെരഞ്ഞെടുപ്പിനെ പറ്റി കുറേ അധികം വാർത്തകളാണ് വന്ന് കൊണ്ടിരുന്നത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും ജാഥകളും പരിപാടികളും അവർ ആൾക്കാരായിട്ട് ഇടപഴകുന്നതും അവർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളും ആ അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ നമുക്ക് വാർത്താ ചാനലിലും കാണാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട് അത് പല വാർത്താ ചാനൽ നമുക്ക് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കിട്ടും ചില വാർത്താ ചാനലുകൾ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ കാണിക്കുന്നെങ്കിൽ വേറെ ചില ചാനലുകൾ അതിൻ്റെ മോശ വശങ്ങളും കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പല വാർത്താ ചാനലുകളും ആ പല രീതിയിലുള്ള മാധ്യമം ദിന പത്രങ്ങളും വായിക്കുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ ഒരു പല രീതിയിൽ വശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയായാലും ഭാരതത്തിലെ സാമ്പത്തിക സ്ഥിതി കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയായാലും ഓഹരി വിപണിയെ പറ്റിയാണെങ്കിലും ഒക്കെ വളരെ അധികം നമുക്ക് ഈ വാർത്താ ചാനലുകളിലൂടെയും ദിനപത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സഹായിക്കും പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു പ്രത്യേകിച്ച് നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ വേനൽചൂട് വളരെ അധികം പ്രശ്നമായിരുന്നു കുറച്ച് നാൾ ഭയങ്കരം അധികം വേനൽ ചൂടുണ്ടായിരുന്നു ചൂടിൻ്റെ ചൂടത്ത് പുറത്തെറങ്ങുന്നതിൻ്റെ ഇറങ്ങാതിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ പിന്നെ ഇപ്പം മഴ വരാതിരിക്കുന്നു അപ്പോൾ മഴ വരുമ്പോഴുള്ള കാര്യങ്ങൾ ഡാമുകളിലെ വെള്ളത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ വാർത്താ പത്രങ്ങളിലൂടേയും ചാനലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓരോ ആ ചാനലുകളും അതിൻ്റേതായ രീതിയിലായിരിക്കും അതിൻ്റേതായൊരു ശൈലി ആയിരിക്കും വാർത്ത അവതരിപ്പിക്കുക അപ്പോൾ നമുക്ക് പഴയ രീതിയിലുള്ളത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതി ഏതാണെന്ന് വച്ചാൽ അത് നോക്കി കാണാൻ പറ്റും കാരണം ഓരോ വാർത്തകളും ഓരോ ചാനലുകളും അല്ലെങ്കിൽ ഓരോ പത്രങ്ങളും പല രീതിയിലായിരിക്കും കാണിക്കുക അപ്പോൾ അത് നമുക്ക് അവരെ ശൈലി അനുസരിച്ച് ഏതാണ് ഏത് രീതിയിലുള്ള വാർത്തയ്ക്ക് ഏതാണോ ഇഷ്ടം എന്ന് വച്ചാൽ അത് വച്ച് നമുക്ക് കാണാം അത് നമുക്ക് അങ്ങോട്ട് കണ്ട് പോവാം പിന്നെ അതൊക്കെ ആണ് ഈയിടെ ആയിട്ട് കുറച്ച് കണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും വായിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഒക്കെ അതൊക്കെ തന്നെയാണ്